ഞാൻ കുറെ തവണ ഞാൻ പട്ടണങ്ങളിലേക്കും നമ്മടവിടുള്ള ടൗണുകളിലേക്കൊക്കേ പോയിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങാനൊക്കെയായിട്ടും പിന്നെ എന്താ പറയാ ഓരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടീട്ടാണ് നമ്മൾ പോകാറിപ്പം മാനന്തവാടിയാണ് എൻ്റെ അടുത്തുള്ളൊരു ടൗണെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഒരു കാട്ടിക്കുളം എന്ന് പറയുന്ന ടൗണ് ഉണ്ട് പക്ഷേ അവിടെ വലിയ കാര്യങ്ങൾ കാര്യമായിട്ട് എന്താ പറയാ സാധനങ്ങളൊന്നും അങ്ങനെ കിട്ടാറില്ല അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഡ്രെസ്സക്കെടുക്കാൻ വേണ്ടീട്ട് മാനന്തവാടിയും കൽപ്പറ്റ അങ്ങനത്തേയുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകാറ് ഇപ്പം ഇടക്കിടക്ക് പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടക്ക് സാധനങ്ങൾ വീട്ടിലേക്കുള്ള സാധനങ്ങളക്കെ വാങ്ങാൻ വേണ്ടീട്ട് പോകാറുണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ നമ്മുടെ കാ കാട്ടിക്കുളത്ത് ഒക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ടും ചെറിയ ചെറിയ സാധനങ്ങൾ ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സാധനങ്ങൾ ഇപ്പം മാത്രമേ എടുക്കാൻ പറ്റുവൊള്ളു പിന്നെ ഇടക്ക് പോകാറ് സിനിമക്ക് പോകാറുണ്ട് സിനിമാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സിനിമ തിയേറ്ററ് കാട്ടിക്കുളം അങ്ങനെ എവിടെ ഇല്ല അപ്പം നമുക്ക് എന്തായാലും മാനന്തവാടിക്ക് തന്നെ പോകണം അപ്പം മാനന്തവാടി പോയിട്ട് വേണം സിനിമ കാണാനും അതിനൊക്കെ പറ്റുവൊള്ളു അപ്പം ഇടക്ക് മാനന്തവാടി പോവാറുണ്ട് അവിടുന്ന് കുറെ സാധനങ്ങളും ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും മാനന്തവാടി ആ എരിയെന്നാണ് നമ്മൾ കൂടുതലായിട്ടും എടുക്കുന്നത്